നിങ്ങളുടെ ഭൂ ഉട ഭൂ ഉടമസ്ഥൻ അപ്പോൾ ഞാന് ആധാർ കാർഡിൻ്റെ കോപ്പി നിങ്ങൾക്കാവശ്യമുണ്ടെന്നല്ലേ പറഞ്ഞത് അത് എന്തിനായിരുന്നു അത് സ്ഥലത്തിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിനാണോ അതെയോ എന്തെങ്കിലും വേറെ എന്ത് ചെയ്യാനായിട്ടായിരുന്നു അപ്പോൾ ഞാനത് ഇവിടെ എൻ്റെ അലമാരിയിൽ ഇരിപ്പുണ്ട് ഞാനത് എനിക്ക് ജോലി തിരക്കുണ്ട് ജോലിയിലാണ് ഞാനിപ്പോൾ ജോലിയിലാണ് പക്ഷേ ഞാൻ അത് എങ്ങനെയെങ്കിലും അവിടെ അവരോട് ചോദിച്ചിട്ട് മാനേജറോട് ചോദിച്ചിട്ട് ഞാനൊരു അഞ്ച് മിനിട്ട് നേരത്തേക്ക് പൊക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും അത്യാവശ്യം ആയിട്ട് നിങ്ങളെ എത്തിക്കാം നിങ്ങൾ അത് എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് ഇമെയിൽ ഐഡിയിലേക്ക് ഈമെയിലേക്ക് അയച്ചാൽ മതിയോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈമെയിൽ ഐ ഡി എനിക്ക് അയക്കുവാണെങ്കിൽ ഞാ നിങ്ങളുടെ ഇമെയിലിലേക്ക് അയച്ചേക്കാം വേറെ എന്തെങ്കിലും വേണോ നിങ്ങൾക്ക് റേഷൻ കാർഡോ അതുപോലെ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങള് പറയുക അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇനിയിപ്പം പിന്നെ ഈമെയിലിലേക്ക് അയക്കാനാണെങ്കിൽ നമുക്ക് എനിക്കിപ്പോൾ ജോലി ചെയ്യുന്നിടത്തിരുന്നാണേലും എൻ്റെ ഈമെയിലിൽ നിന്ന് നിങ്ങളുടെ ഈമെയിലിലേക് അയക്കാം അതല്ല നിങ്ങളുടെ കൈവശം കൊണ്ട് തരണോ എങ്കില് എനിക്ക് ഇവിടെ മാനേജറുവായിട്ട് സംസാരിച്ചതിനു ശേഷമേ എനിക്ക് എൻ്റെ ജോലിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങള് നിങ്ങളുടെ സൗകര്യം പോലെ എന്നെ അറിയിക്കുക